ഞങ്ങളുടെ പ്രദേശത്ത് കൃഷി ഭയങ്കര കോമൺ ആയതുകൊണ്ട് വിദേശത്തു നിന്ന് ആളുകളൊക്കെ സ്ഥലം കാണാൻ വരുമ്പോഴൊക്കെ ആണേലും കൃഷിയൊക്കെ അല്ലെങ്കിൽ വിളവെടുക്കുന്നത് കാണുമ്പോഴോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് കൗതുകമാണ് അപ്പം അവർ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പറ്റി കൂടുതൽ അറിയാൻ ആയിട്ടാണെങ്കിലും ആൾക്കാരോട് അതിനെപ്പറ്റി അന്വേഷിക്കാറുണ്ട് അല്ലെങ്കിൽ അതൊക്കെ ചെയ്തു കാണുന്നതും കണ്ടു നിൽക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വിനോദസഞ്ചാരികളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിച്ചു നിൽക്കുന്നത് കാണുമ്പം ഇപ്പോ ഭയങ്കര സന്തോഷാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരാൾ ഇതേപോലെ കൗതുകമായിട്ട് അതും വിദേശത്തു നിന്നു വരുന്ന ഒരാൾ ഫോട്ടോ എടുക്കുന്നതൊക്കെ കാണുമ്പോഴാണേലും ഭയങ്കര നല്ല രസമാണ് ഇപ്പോൾ കൃഷിയൊക്കെയാണെങ്കിലും കള പറിക്കുന്നതും അതുപോലെ തന്നെ പച്ച പരവതാനി വിരിച്ചതുപോലെയുള്ള പാടങ്ങളൊക്കെ കാണുമ്പോഴാണേലും ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ വന്നിട്ടാണെങ്കിലും അവിടെ വന്ന് ഫോട്ടോ എടുക്കാനും അല്ലേൽ ആ കൃഷി രീതിയെപ്പറ്റി അറിയാനും എന്ത് വി എന്ത് വിളയാണ് അവിടെ കൃഷി ചെയ്തിരിക്കുന്നതൊക്കെ അറിയാനും അവർക്ക് ഭയങ്കര താൽപര്യമാണ് അപ്പോൾ അവർ അതിനെപ്പറ്റി കൂടുതൽ ചോദിച്ചറിയാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അവർ കൂടുതൽ ഈ വിനോദസഞ്ചാരികളായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടും എന്നാൽ എല്ലാവരും അങ്ങനെ ആണെന്നുമല്ല എങ്കിലും അവർ അവരുടെതായ രീതിയിലോക്കെ അത് പറഞ്ഞു കൊടുക്കുന്നത് കാണാനും എന്നാലും ആ വിനോദസഞ്ചാരികൾക്ക് അവർക്ക് മനസ്സിലാകും വിനോദസഞ്ചാരികൾക്ക് അവരുടെ അവർ പറയുന്നതൊക്കെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതിനോട് കാതോർത്തു നിൽക്കുന്നതൊക്ക് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പം ഞങ്ങളുടെ നാട്ടിൽ കൃഷിയൊക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ളത് കൊണ്ട് ഒരുപാട് പേർ അതിനെ പറ്റി അറിയാൻ താല്പര്യപ്പെടാറുണ്ട് അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള രീതിയിലും ഒക്കെ ഉൽപന്നം കൃഷി ചെയ്യുന്നു എന്ന് അറിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വിത്തൊക്കെ വാങ്ങാനാണെങ്കിലും അവർ തയ്യാറാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്